ആ ആരാണ് ആ എന്തായിരുന്നു കുഴപ്പം ആണോ ആ ആണോ എത്രയുടെ ആയിരുന്നു

ആ ശരി എന്നിട്ട് ഇന്ന് ഇപ്പോഴാണോ പറയുന്നത് എന്നാൽ ഇനി കുഴപ്പമില്ല ആ എന്നാൽ ശരി ശരി എന്നാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും കേട്ടോ

ആ അതെല്ലാം കുഴപ്പമില്ല ഞങ്ങൾ അത് സൂക്ഷിച്ചൊക്കെ ചെയ്തോളാം ആ ശരി ആയിക്കോട്ടെ തരാം തരാം തരാം കുഴപ്പമില്ല കുഴപ്പമില്ല ആ അതിൻ്റെ സംഖ്യത്തൊന്നൊന്ന് ഒന്ന് ഓർമിപ്പിച്ചേക്കണേ എത്ര എണ്ണമാണെന്ന് ഒന്നു കൂടെയൊന്ന് ഓർമിപ്പിച്ചേക്കണം ആണല്ലേ ആ ഹാ ശരി ശരി അതേ കഴിഞ്ഞ ദിവസം എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ ആ ക്ഷമ ചോദിക്കുന്നു ആ എന്നാൽ ശരി ആണല്ലേ ആ ശരി ശരി ഇനി അങ്ങനത്തെ കുഴപ്പമില്ലാതെ നോക്കി കൊള്ളാം കേട്ടോ ഇനി ഇപ്പം അങ്ങനെ പറ്റി പോയി ഇനിഇപ്പം അത് പറഞ്ഞിട്ട് കാര്യം ഇല്ല ഇനി ഇപ്പം നല്ല സാധനം ഓഡറ് ചെയ്യാം അന്നേരം അതിനിച്ചിരെ ഇച്ചരെ അതിൻ്റെ ഇച്ചരെ കുറച്ചു കൂടെ തരാം കേട്ടോ ആ അറിയിക്കണേ അറിയിക്കണേ ആ ശരിയാണ് ആ എന്നാൽ ശരി അല്ല നിങ്ങൾക്ക് വേറെ വല്ലോം നിങ്ങൾ ഇവിടെ കടയിൽ വന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പോൾ എന്നാ വരാത്തത് ആ ആ ആ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ നല്ല ഫുഡുകളൊക്കെയുണ്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെയുണ്ട് ആ എന്നാൽ ശരി ഓക്കെ ശരി ശരി ശരി ഓക്കെ